ഇന്നത്തെക്കാലത്ത് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആപ്പുകൾ എന്നു പറയാനാണെങ്കിൽ മെസേജിംഗ് ആപ്പ്സ് ആണ് അതിനെ ഇപ്പോൾ ഫേസ്ബുക്ക് ഇപ്പോൾ പിന്നെ വാട്ട്സപ്പ് പിന്നെ ഇൻസ്റ്റാഗ്രാം അങ്ങനെയുള്ള ആപ്പുകൾ ആണിപ്പോൾ ആളുകൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് പിന്നെ ഇതിനെ സ്മാർട്ട് ഫോണുകൾ കൊണ്ടുള്ള ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ ഇപ്പോൾ തന്നെ ചെറിയ കുട്ടികളൊക്കെ ഫോണിലാണ് കൂടുതൽ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളുടെ കണ്ണിനു പ്രശ്നം വരിക അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഇപ്പോൾ ഉണ്ടായി വരുന്നുണ്ട് പിന്നെ സ്മാർട്ട് ഫോണുകളിലൂടെ പല ഗെയിമിംഗ് ആപ്പുകളിലൂടെയും പകുതി ആൾക്കാരും അവരുടെ ക്യാഷുകളൊക്കെ പകുതിയും ഇതായി പോവുന്നുണ്ട് പിന്നെ സ്മാർട്ട് ഫോണുകളിൽ പൊട്ടിത്തെറിക്കുക അങ്ങനെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകാരണം ഈ സ്മാർട്ട് ഫോണുകൾ കൊണ്ട് കുറെ ബുദ്ധിമുട്ടുകൾ ആളുകൾക്ക് ഉണ്ടാവുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഓരോ സ്മാർട്ട് ഫോണുകളെ അപ്ഡേറ്റ് വരുന്നതിന് ഒരുമിച്ചിട്ട് ഈ ആളുകൾ പൈസപോലും നോക്കാണ്ട് ഫോണുകൾ മാറ്റുന്നു അതൊക്കെ ഓരോ അപ്ഡേറ്റ്സിലും പിന്നെ സ്മാർട്ട് ഫോണിനു വേണ്ടിയിട്ട് സ്ഥാപിക്കുന്ന ടവറുകളൊക്കെ മൂലം കിളികൾ പോലുള്ളവയൊക്കെ പെട്ടെന്നുതന്നെ മരിച്ചു പോവുകയും ചെയ്യുന്നു പെട്ടെന്നുതന്നെ കിളികൾ ചത്തു പോവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് റേഡിയേഷൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ടവറൊക്കെ വരുന്നതുകൊണ്ട് അങ്ങനെ സ്മാർട്ട് ഫോണുകൾ കൊണ്ട് കുറെ ബുദ്ധിമുട്ടുകൾ വേറെയും വരുന്നുണ്ട്